ഹലോ ഹലോ നമസ്കാരം എൻ്റെ പേര് കാവ്യാ എന്നാണേ ഇത് ഊബറിൻ്റെ ഓഫീസല്ലേ ആ ഞാൻ രണ്ട് ദിവസം മുൻപെ ഊബർ ബുകങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അവിടുന്ന് ആ ഇന്നലത്തേക്കായിരുന്നു ബുക്ക് ചെയ്തത് ബാംഗ്ലൂർ പോകാനായിരുന്നു പക്ഷെ ചില അവസ്ഥകൾ കൊണ്ട് ഇന്നലത്തെ യാത്ര വേണ്ടാന്ന് വെക്കേണ്ടി വന്നു ആ എൻ്റെ അമ്മയുടെ മാമൻ മരണപ്പെട്ടു അതുകൊണ്ടു തന്നെ പെട്ടെന്നായിരുന്നു മരണം അതുകൊണ്ടു തന്നെ ക്യാൻസൽ ചെയ്യാനും ഈ ബുക്കിങ് ക്യാൻസൽ ചെയ്യാനൊക്കെ പറ്റിയിട്ടില്ല വീട്ടിലെ ബഹളത്തിൻ്റെ ഇടയിൽ ആൾ തിരക്കിൻ്റെ ഇടയിലെല്ലാം യാത്രയുടെ കാര്യം അങ്ങ് വിട്ടു പോയി ബാഗ്ലൂരിലേക്ക് ഊബറിന് ആയിരത്തി എണ്ണൂറു രൂപയാണ് അവർ പറഞ്ഞത് അതിൻ്റെ ഇരുപത്തഞ്ചു ശതമാനം അഡ്വാൻസ് ആയിട്ട് അടക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടു ഞാൻ നാന്നൂറ്റി അൻപത് രൂപ അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെങ്ങനെയാണ് ഇത് റീഫണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ റീഫണ്ട് പോളിസിയെ കുറിച്ചൊന്നു പറഞ്ഞു താരാൻ പറ്റുമോ പൈസ അടച്ചതിൻ്റെ റെസിപ്റ്റ് നമ്പർ എൻ്റെ കയ്യിലുണ്ട് റെസിപ്റ്റ് നമ്പർ മൂന്ന് ഏഴ് ആറ് നാലാണ് അപ്പോൾ നിങ്ങൾ എത്ര എമൗണ്ടാണ് സർവ്വീസ് ചാർജ്ജായിട്ട് ഈടാക്കുക അതിൻ്റകത്തുനിന്ന് അതുപോലെ ഞാൻ ഗൂഗിൾ പേ വഴിയായിരുന്നു പൈസ അടച്ചിട്ടുണ്ടായിരുന്നത് ആപ്പ് വഴിയല്ല ഗൂഗിൾ പേ വഴിയായിരുന്നു ചെയ്തത് ആ നിങ്ങളുടെ ഒരു സർവ്വീസ് പ്രൊവൈഡറിൻ്റെ നമ്പറിലേക്കാണ് ആ പൈസ അടച്ചിട്ടുള്ളത് റെസിപ്റ്റ് തന്നിട്ടുണ്ട് റെസിപ്റ്റ് നമ്പർ മൂന്ന് ഏഴ് ആറ് നാലാണ് ആ അപ്പോൾ എനിക്ക് അടച്ച പൈസ നിങ്ങളുടെ സർവ്വീസ് ചാർജ്ജും കഴിച്ചിട്ട് റി റീഫണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലേ ആ അതിന്നു തന്നെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒന്ന് റീഫണ്ട് ചെയ്തു തരാൻ പറ്റുമോ